ഇതുകൊണ്ട് എനിക്ക് എന്തുകൊണ്ടും ഗുണങ്ങൾ മാത്രമേ ഉളളൂ എനിക്ക് ഗ്യാസുപോലുള്ള ഗ്യാസ് വിറക് അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല നേരെത്തെ എണീട്ട് വെള്ളം ചൂടാക്കുകയോ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നും എനിക്ക് വരുന്നില്ല ഈ പ്രൊഡക്റ്റ് കൊണ്ട് എനിക്ക് എപ്പോഴൊക്കെയാണ് എനിക്ക് മോർണിങ് എല്ലാ ദിവസവും കുളി കുളിക്കാനൊക്കെ വെള്ളം ഞാൻ ഇത് തന്നെയാണ് ചൂടാക്കുന്നത് എന്റെയൊരു ഫ്രണ്ട് വഴിയാണ് ഞാൻ ഈ സാധനം പരിചയപ്പെടുന്നത് അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കണ്ടിട്ടാണ് ഞാൻ ഈ സാധനം ബുക്ക് ചെയ്തതും വരുത്തിയതുമൊക്കെ ഇപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഈ പ്രൊഡക്റ്റ് കൊണ്ട് നല്ല യൂസ് ആണ് എല്ലാവർക്കും കുളിക്കാനുള്ള വെള്ളമൊക്കെ ഞങ്ങൾ ഇതിൽ തന്നെയാണ് ചെയ്യുന്നത് എന്തുകൊണ്ടും ബെറ്ററായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് ഹീറ്ററിനെ ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ളൊരു എന്താ പറയുക ഒരു ഇതാണ് തോന്നിയിട്ടുള്ളത് അഭിപ്രായമാണ് ഇതിനെപ്പറ്റി പറയാനുള്ളതും അപ്പോൾ ഇത് എന്തെന്നുവെച്ചുകഴിഞ്ഞാൽ ഇത് ചെറിയൊരു മിനി എന്താ പറയുക ഒരു ചെറിയ റേറ്റിൽ തന്നെ എനിക്ക് നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ ഇതുകൊണ്ട് എനിക്കും എൻ്റെ ഫാമിലിക്കും നല്ലൊരു ഗുണം തന്നെയാണുള്ളത് പിന്നെ ഇത് എന്തുകൊണ്ടും മറ്റ് ഹീറ്ററുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്ക് ബെറ്ററായിട്ടാണ് തോന്നിയിട്ടുള്ളതും ഇത് നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് എൻ്റെ ഒരു നിഗമനം